ഞാൻ ഒരാഴ്ച മുൻപ് ഒരു പ്രൊഡക്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് വങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ഞാൻ മേടിച്ച ഉപകരണം ഒരു ലാപ്ടോപ്പ് ആണ് അത് കിട്ടിയത് എനിക്ക് ഒരാഴ്ച കഴിഞ്ഞാണ് വളരെ സങ്കടത്തോടെയാണ് റിവ്യൂ ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് കാരണം എനിക്ക് ഞാനാഗ്രഹിച്ച ഉപകരണം എനിക്ക് കിട്ടിയത് വളരെ ദയനീയമായ അവസ്ഥയിലാണ് യാതൊരു വിധ വൃത്തിയും യാതൊരു വിധ സൂക്ഷ്മയും ഇല്ലാതെയാണ് എനിക്ക് എൻ്റെ ഉപകരണം എൻ്റെ കയ്യിൽ പെട്ടത് യാതൊരു വിധ ചെക്കിങ്ങും ഇല്ലാതെയാണ് എനിക്ക് ഉപകരണം എൻ്റെ കയ്യിൽ പെട്ടത് ഉപകരണം കിട്ടിയതിന് ശേഷം ഞാൻ ഉപകരണം തുറന്നു നോക്കിയപ്പോൾ വളരെ സങ്കടപെട്ട അവസ്ഥയിലാണ് ഞാൻ നിന്നത് കാരണം എനിക്ക് കിട്ടിയ ഉപകരണം അതിൽ കേടുപാടുകൾ ഉണ്ടായിരുന്നു അത് വൃത്തിയും സൂക്ഷ്മതയും അല്ലാതെ കൊണ്ടു വന്നു തന്നതുകൊണ്ട് അതിന് കേടുകൾ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ സ്ക്രീനിൽ പാടുകൾ ഉണ്ട് അത് പൊട്ടി കാണുന്നു എൻ്റെ ഉപകരണത്തിൽ വളരെ ദയനീയമായ അവസ്ഥയാണ് ഇങ്ങനെയാണെങ്കിൽ ഇവരുടെ സ്ഥലത്തുനിന്ന് അടുത്ത പ്രൊഡക്ട് വാങ്ങാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്